സാധാരണ ഗതിയിൽ ഒരു വീട്ടിൽ മോട്ടറുകളുപയോഗിച്ചും പിന്നേ കപ്പിയും കയറുമുപയോഗിച്ചാണ് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാറ് ഒരു സാധാരണകാരന് വീട്ടിൽ ആവിശ്യമുള്ള വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് രീതികളാണ് ഉപയോഗിച്ച് വരുന്നത് ഇതിൽ കുടുതലുംഇന്നത്തെ കാലത്ത് മോട്ടോറാണ് ഉപയോഗിക്കാറ് ആള്ക്കാര് പിന്നേ വളരെ ചുരുക്കം ആയിട്ടുള്ള ആള്ക്കാര് മാത്രം കപ്പിയും കയറും ഉപയോഗിച്ച് ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട് പഴയ ആ ഒരു രീതി പൂർത്തീകരിച്ച് അതായത് തുടർന്ന് പോകുന്ന ആൾക്കാര് ഇപ്പോഴും ഉണ്ട് അത് അവരുടെ സാഹചര്യം മൂലവും അവർക്ക് പുതിയ ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോകാനുള്ള ഒരു സാമ്പത്തിക സാന്തീകത ഇല്ലാത്തത് കൊണ്ടുമാണ് അവര് ഇപ്പോഴുംകപ്പിയും കയറും ഒക്കെ ഉപയോഗിച്ച് കൊണ്ട് നടക്കുന്നത് ഒരു എമ്പത്തഞ്ച് എമ്പത് ശതമാനത്തോളം ആൾക്കാരുംപുതിയ മെഷീൻസ് മോട്ടോറുകൾ പോലത്തെ അ മെഷീനുകളിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് നമ്മള് നമ്മളല്ല അതായത് ആ ഒരു ഒരു കുടുംബത്തിലുള്ള ഒരാൾക്ക്പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല കാരണം അത് കൊണ്ട് വന്ന് ഫിക്സ് ചെയുന്നതും അതായത് കൊണ്ട് വന്ന് അത് വച്ച് കൊടുക്കുന്നത് ഒക്കെ ഒരു ഇലക്ട്രീഷ്യനായിരിക്കും അവര് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടായിരിക്കും പോകുന്നത് പിന്നേ നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിനകത്ത് നമ്മള് സ്വിച്ച് ഇട്ട് മോട്ടോറിലേക്കുള്ള കറണ്ട് കണക്ഷൻ പോകുന്നതിനായിട്ടുള്ള സ്വിച്ച് നമ്മൾ ഓൺ ആക്കുക വെള്ളം കയറി പൂർത്തി ആകുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കുക അങ്ങനെ ആണ് അങ്ങനെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഇപ്പം വരുന്നത്